ഇപ്പോള് കുട്ടികള്ക്ക് കളിക്കാനാവശ്യമായ ഓരോരോ സൗകര്യങ്ങളും അതുപോലെതന്നെ ഓരോ ഗ്രാമത്തിലും ഓരോ ഓരോ ടര്ഫ് വെച്ച് കുട്ടികള്ക്ക് കെട്ടിക്കൊടുക്കും കാരണം എന്താണെന്നുവച്ചാല് അവര്ക്ക് കളിയ്ക്കാനാവശ്യമായ സ്ഥലങ്ങള് ഇവിടെ ഇല്ല കാരണം എന്താണെന്നുവച്ചാല് ഇപ്പോള് ഓരോ സ്ഥലങ്ങളും ഓരോരുത്തരെ പേരിലായിരിക്കും അപ്പോരവാ അവര് കളിക്കാന് പിള്ളേര്ക്ക് കൊടുക്കണമെന്നില്ല കൊടുക്കണമെന്നില്ല അതുകൊണ്ട്തന്നെ എല്ലാ ഗ്രാമത്തിലും കുട്ടികള്ക്ക് കളിക്കാന് വേണ്ടി ഒരു ടര്ഫെങ്കിലും ഒപ്പിക്കണം കാരണം ഇത് കളിക്കാന് ഒരു സ്പേസ് നമ്മളുണ്ടാക്കി കൊടുക്കണം അത് നമ്മടെ കടമയാണ് അതിങ്ങനെ ചെയ്താലെ ഒരു ശക്തവും അതുപോലെതന്നെ മാനസികമായി വളരെ കഴിവുകളുമുള്ള ഒരു ജനതയെ നമുക്ക് വാര്ത്തെടുക്കാന് കഴിയത്തുള്ളൂ അപ്പോള് ആ ഒരു കളിക്കും സൗകര്യങ്ങളൊരുക്കി കൊടുക്കുന്നത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോള് നമ്മളത് ചെയ്യേണ്ടതുമാണ് അപ്പോള് അങ്ങനെയൊക്കെയാണ് ചെയ്യണ്ടെ കുട്ടികള്ക്ക് കളിക്കാനുള്ള അതെന്നുവച്ചാല് ബാറ്റ് അങ്ങനെയുള്ള ഷട്ടില് കളിക്കാന് ഷട്ടില് ക്രിക്കറ്റ് കളിക്കാന് ബാറ്റ് ബോള് പാഡ് അതുപോലെതന്നെ സ്റ്റമ്പ് ഫുട്ബാള് കളിക്കാന് ഫുട്ബോളിന്റെ ബോള് അത്പോലെതന്നെ ഒരു രണ്ട് പോസ്റ്റ് അത്പോലെതന്നെ പിന്നെ ഗ്ലൗ അതെല്ലാം നമ്മള് പിന്നെ കുട്ടികള്ക്ക് വേണ്ടി ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ് അപ്പോള് അതവര് ആലോചിക്കുമ്പോഴാണ് അവര് അവര്ക്ക് ആവശ്യമുള്ളത് വേണം അപ്പോള് നമ്മള് ചെയ്ത് കൊടുക്കേണ്ടതുമാണ്